ഇപ്പം ഹിൻ കേരളത്തിലെ ആളുകൾ അവരുടെ ഉത്സവം എങ്ങനെയാണ് പിന്നെ ആഘോഷിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയാന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗം തെയ്യങ്ങളെ കൊണ്ട് വടക്ക് കേരളത്തിലെ വടക്കൻ ജില്ലയാണ് നമ്മളത് കാസർഗോഡ് അപ്പോൾ നമ്മൾ ഈട നമ്മളെ ഇത് ആഘോഷിക്കാൻ ആഘോഷിക്കുന്നത് നമ്മളെ സംസ്കാരങ്ങൾ ആഘോഷിക്കുന്നത് നമ്മളെ ഉത്സവങ്ങൾ ഒക്കെ ആഘോഷിക്കുന്നത് ഇതാണ് തെയ്യം നമ്മളെ മെയ്ന് തെയ്യവാണ് നമ്മളെ നാട്ടിൽഉ ഉള്ളത് ഇപ്പോൾ നമ്മളി വടക്ക് വടക്കൻ ജില്ലകളിൽ തെയ്യങ്ങളാന്ന് ഉത്സവങ്ങളുടെ മെയിന് പിന്നെ അമ്പലങ്ങളേൽ ഉത്സവങ്ങൾ ആറാട്ട് ആറാട്ടുത്സവം പിന്നെ ഇത് നവരാത്രി ഉത്സവം അങ്ങനെ കുറെ രീതിയിലുള്ള ഉത്സവങ്ങൾ നമുക്ക് ഉണ്ട് നമുക്ക് അറിയുന്നതായിട്ട് കുറെ ഉത്സവങ്ങള്ണ്ട് അയ ആ പിന്നെ എല്ലാ ഉത്സവങ്ങളെയും എല്ലാ ആഘോഷങ്ങൾ എല്ലാ ഉത്സവങ്ങളെയും ഒരു ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ പോകുന്നുള്ളുത് നമ്മളെ ഹിന്ദു ഹിന്ദൂ പിന്നെ ഹിന്ദുക്കളെന്ന് പറയുന്ന ആൾക്കാർ എല്ലാം നമ്മൾ നമ്മൾ എല്ലാവരുവായി നമ്മുടെ നാട്ടിൽ നമ്മൾ തെയ്യങ്ങളെ കൊണ്ടാന്ന് നമ്മളെ ഉത്സവങ്ങൾ ആഘോഷം ആഘോഷമാക്കി തീർക്കൽ അത് ഒര് പ്രത്യേക രീതിയിൽ നമ്മളെ വടക്കൻ ജില്ലകളിൽ മാത്രമമേ തെയ്യങ്ങൾ ഉള്ളു അപ്പോൾ ആ തെയ്യങ്ങൾ കാണാൻ വേണ്ടീട്ട് കുറെ അങ്ങ് ദൂരെ നിന്ന് അങ്ങോട്ട് തെക്ക് തെക്കോട്ടില്ല ആൾക്കാരും എല്ലാവരും വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൃശൂർ പൂരംന്നെല്ലാം പറഞ്ഞാൽ കുറെ അറിയപ്പെട്ട ഒരു ഉത്സവം ഉത്സവെല്ലാന്ന് എല്ലാം നമ്മൾ അതിനെ എല്ലാത്തിനേം ആഘോഷം ആഘോഷപ്പൂർവ്വം നമ്മൾ കൊണ്ടാടുകയാണ് ഇവിടെ ഹിന്ദൂസ്ന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളെയും ഒരു ആഘോഷമാക്കിത്തീർത്ത് കൊണ്ട് നമ്മൾ പിന്നെ പോയിക്കൊണ്ടണ്ടാന്ന് അതേ അതേപോലെ ഇപ്പോൾ നമുക്ക് ഒരു നമ്മളെ നാട്ടിൽ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടെങ്കിൽ പോലും ആടാ ചെറിയൊരു കളിയാട്ടം കാര്യങ്ങൾ പിന്നെ ഈ ഉത്സവംന്ന് പറയുന്നത് തന്നെ കളിയാട്ടംന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിൽ കളിയാട്ടംന്ന് പറഞ്ഞാൽ ഇതന്നെ തെയ്യം തെയ്യം അങ്ങനെയില്ല ഇതാന്ന് കളിയാട്ടം ഒരു പിന്നെ ഒരു നാട്ടിൽ ഒരു ചെറിയൊരു ഇത് അമ്പലം ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഉത്സവത്തിന് കുറെ ആൾക്കാർ ചേരുന്ന ഒരു ആഘോഷമാക്കിത്തീർത്തോണ്ട് നമ്മൾ കൊണ്ടാടലുണ്ട് നമ്മളിത് എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്തന്നെ ഇത് താനമുണ്ട് പിന്നെ അമ്പലമുണ്ട് അമ്പലത്തിൽ വേറെ ഉത്സവം താനത്തിൽ തെയ്യം മറ്റെ കുറച്ച് കുറെ പിന്നെ ഇത് ആഘോഷങ്ങളുണ്ട് നമ്മളേ പിന്നെ ഷഷ്ഠി മഹോത്സവംന്ന് പറഞ്ഞിറ്റ് പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഇത് പെട്ടന്ന് പറയാൻ പറയുമ്പോൾ നമുക്ക് എന്തൊ എന്ത് പറയണംന്ന് അറിയത്തില്ല നമുക്ക് എല്ലാം എല്ലാം നമ്മക്കൊരു ആഘോഷമൊന്നുമല്ല എല്ലാ ഉത്സവങ്ങളും നമുക്ക് ഒരു ആഘോഷം തന്നെ എല്ലാം അമ്പലങ്ങളിൽ നട നടക്കുന്നയായാലും എല്ലായിടത്തും പിന്നെ നൽകുന്ന ഉത്സവങ്ങളെല്ലാം ഉത്സവങ്ങളെയും നമ്മൾ ആഘോഷം ആഘോഷ് ഷി ആഘോഷകരമാക്കിത്തീർത്തോണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കാറുള്ളത് പിന്നെ നമ്മൾ നമ്മളെ നമ്മളെ സംസ്കാരത്തിൻറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്കാരത്തിന് മെയ്നായിട്ട് നമ്മൾ കുറെ ഇത് അമ്പലങ്ങളും കുറെ ഇത് നമുക്ക് വേറെ വേറെ വേറെ വേറെ ആൾക്കാരെ വേറെ വേറെ ജാതിയിൽ അങ്ങനെയുള്ള കുറെ പിന്നെ അമ്പലങ്ങൾ അപ്പോൾ ഓരോ അമ്പലങ്ങളിലും ഓരോ പ്രത്യേകം പ്രത്യേകം ഓരോരു രീതിയിലുള്ള പിന്നെ ആഘോഷങ്ങളും കുറെ ആനകൾ പിന്നെ ഇത് പരിവാരങ്ങൾ കുറെ അങ്ങനെയുള്ള കുറെ ആഘോഷ രീതികളുണ്ട് നമ്മളെ നാട്ടിൽ പിന്നെ കുറച്ച് അല്ല കുറെ ഒരു പൈതൃകപരമായ കുറെ ആഘോഷങ്ങൾ നമ്മളെ നാട്ടിൽ ഉണ്ടാവാലുണ്ട് അതേപോലെ തന്നെ എൻ്റെ ന എൻ്റെ നാട്ടിൽ ഇതേപോലെ നമ്മൾ എന്ന കുറച്ച് ഈ താനങ്ങളും തറവാട് താനം അതെല്ലാം കുറച്ച് കൂടുതലാന്ന് പിന്നെ കുറെ അതിൽ പറയുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് പാനാട്ട് കുലവൻന്ന് പറഞ്ഞിട്ട് മുത്തപ്പൻ തെയ്യത്തിനും പറശ്ശിനിക്കടവ് മുത്തപ്പൻ തെയ്യത്തിനെ പോലെയില്ല ഒരു പിന്നെ ഇതാണ് പാനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവംന്ന് പറഞ്ഞാൽ അത് അതെല്ലാം തെയ്യന്നെ നമ്മൾ ഈ നാട്ടിൽ തെയ്യങ്ങളാന്ന് കുറെ കൂടുതൽ ഇത് ഒരു ഒരു സമയമുണ്ട് ഒരു ആ സീസണിൽ തെയ്യങ്ങൾ കുറച്ച് കൂടും പിന്നെ നമ്മളെ എല്ലാ തറവാടുകളും ആ കാര്യങ്ങളെല്ലാവുമ്പോൾ തെയ്യം അതെല്ലാം കുറച്ച് നമുക്ക് ആ ഈ ലാലിൽ നമുക്ക് പിന്നെ ഈ ആഘോഷങ്ങളിൽ നമുക്ക് നമുക്കും എല്ലാ ആൾക്കാർക്കും കുറച്ച് ഇത് ഒന്ന് ചേരാനില്ല ഒരു നാട്ടിൽ ചെറിയൊരു താനം അമ്പലം എല്ലാമുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ച് പിന്നെ ചേരാനുള്ളൊരു ഇതെല്ലാം അവസരം നമുക്ക് ആട കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉത്സവങ്ങൾക്കാന്ന് പിന്നെ പ്രാ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഇങ്ങോട്ട്ല്ലത് തെയ്യം അപ്പോൾ ആ ഭാഗത്ത് തൃശൂർ പൂരം പിന്നെ ഇത് കസവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതുണ്ടു കസവെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തൊയില്ല അത് അങ്ങോട്ടില്ലെ എന്നൊരു ഉത്സവത്തിൻ്റെ പേരായിരിക്കും പക്ഷേ നമ്മളെ നാട്ടിൽ ഇല്ലത് തെയ്യങ്ങളാണ് തെയ്യങ്ങളെ കൊണ്ട് ആചാരങ്ങളും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന തെയ്യം കലാകാരന്മാരെന്ന് പറഞ്ഞാൽ തെയ്യം ഒരു കലാരൂപന്നെ പക്ഷേ അതിനെ ഒരു ദൈവമായി കണ്ടിട്ട് നമ്മൾ ആഘോഷിക്കാറാന്ന് പതിവ് നമ്മളെ ദൈവങ്ങളെ ദൈവങ്ങളുടെ പ്രതിരൂപാന്ന് തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെയ്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരോരു ഓരോരു ദൈവങ്ങൾക്ക് ഓരോരോ പ്രതിരൂപങ്ങളുണ്ടാവുവല്ലോ അപ്പം അതിനെ കെട്ടിയാടി കൊണ്ടാന്ന് നമ്മൾ നമ്മളെ വടക്കൻ ജില്ലകളിൽ ആഘോഷിക്കുന്നത് തെയ്യംന്ന് പറഞ്ഞാൽ തെയ്യത്തിന് ആഘോഷിക്കുന്നത് നമ്മൾ നമ്മൾ ഈ നാട്ടിൽ ഓരോരു നമുക്ക് കുറെ ദൈവങ്ങളുണ്ട് നമ്മുടെ ഹിന്ദൂസിന് കുറെ ദൈവങ്ങളുണ്ട് ആ ഓരോരു ദൈവങ്ങൾക്കും ഓരോരു പ്രതിരൂപങ്ങളുണ്ട് പിന്നെ അതിന് ഓരോരു ഇത് ഭാവങ്ങളുണ്ട് ആ പാവങ്ങളും ഇത് പ്രതിരൂപങ്ങളെല്ലാം നമ്മൾ കെട്ടിയാടിക്കൊണ്ടും പിന്നെ അങ്ങനെയെല്ലാം കാണിച്ച ഇത് കാണിച്ചു കൊണ്ടില്ല ഒരു ഉത്സവാന്ന് നമ്മളെ വടക്കൻ ജില്ലകളിൽ നമ്മളെ ഈ ഭാഗത്ത്ള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു ഉത്സവാന്ന് പ്രത്യേക പ്രത്യേകതരത്തിൽ അതാന്ന് നമുക്ക് പ്രത്യേകത പിന്നെ അമ്പലങ്ങളിലും അല്ല അമ്പലങ്ങളിൽ ഇത് ആറാട്ട് പിന്നെ അങ്ങനത്തെ ഉത്സവങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഈട നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഇതന്നെ നമ്മൾ ഈ ഇങ്ങോട്ട് കാസർഗോഡ് ജില്ലയിലെന്ന് പറഞ്ഞാൽ തെയ്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ആഘോഷമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് തെയ്യങ്ങളെ തെയ്യങ്ങളെ ഉപയോഗിക്കുന്നത്ന്നല്ല നമുക്കത് ആചാരം ആചാരം അനുഷ്ഠാനങ്ങളായിട്ട് കൈമാറിക്കൊണ്ട് വന്നോണ്ട് വലിയ എന്നൊരു തലമുറകൾ തലമുറകളായിട്ട് കൈമാറി കൊണ്ട് വന്നോണ്ടുള്ള ഒരു ഉത്സവ രീതിയാണ് നമ്മളെ ഈ ഭാഗത്ത് കാസർഗോഡ് ജില്ലയിൽ ഇല്ലത് കാസർകോഡ്ന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കൻ ജില്ലകളിൽ ഉള്ളത് ആ ആഘോഷങ്ങൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ ഇത് താനത്തിലോ അങ്ങനെ താനംന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രംന്നെ ആ താ താനത്തിലോ അങ്ങനെ ഒന്നിച്ച് കൂടിയിട്ട് ഭക്ഷണം കൊടുത്ത് പിന്നെ എല്ലാവർക്കും എല്ലാവരും വരുന്നവർക്കെല്ലാം ഭക്ഷണം അത് ഇതെല്ലാം കൊടുത്തിട്ട് ഇവർ കമ്മിറ്റി എന്ന രീതിയിൽ ഇതാക്കിയിട്ട് സ്ഥാനത്തിൻ്റെ ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് അത് കഴിഞ്ഞ് ഇത് ആ ഉത്സവം നടത്തി കഴിയുമ്പോലുള്ളൊരു സമാധാനം തൃപ്തിയും നമുക്ക് അതിൽ കിട്ടുന്ന ഒരു അനുഗ്രഹവും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം എല്ലാം കൊണ്ടും നമ്മുടെ ഉത്സവങ്ങൾ നമുക്ക് ആഘോഷം ആഘോഷം തന്നെയാണ് പിന്നൊരു നമ്മളെ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ തെയ്യം എന്ന് പറയുന്നത് ആചാരം അതിപ്പോൾ നമുക്ക് പണ്ടും പണ്ടെ എല്ലാം ഇങ്ങനെ കൈമാറി കൈമാറി കൊണ്ട് വന്നോണ്ടില്ല പിന്നെ അനുഷ്ഠാന രീതികളാണ് ഇതെല്ലാം നമ്മളുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയില്ന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കൈമാറി തലമുറ കൈമാറി കൊണ്ട് വന്നോണ്ടില്ല പിന്നെ ഉത്സവ ഉത്സവ രീതിയാന്ന് ഇതെല്ലാം അതിനെ ഇപ്പോഴും കണ്ടിന്യൂ ആക്കിക്കൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇനിയും മുമ്പിലോട്ടില്ല എല്ലാ മുമ്പിലോട്ടില്ല തലമുറയും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മുമ്പിലോട്ട് ഇതേ രീതിയിൽ കൊണ്ട് പോണംന്ന് ഒരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഉത്സവങ്ങളെയും പിന്നെ നമ്മുടെ ഉത്സവങ്ങളെയും നമ്മളെ ഇനീം നമ്മുടെ എന്ത് എന്ത് പറയൽ നമ്മളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ എന്തായാലും അതിനെ ഒരിക്കലും ഇത് മാറ്റിനിർത്താൻ പാടില്ല എല്ലാത്തിനേം ഒന്നിച്ച് കൊണ്ട് വന്ന് നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ അതേ രീതിയിൽ കൊണ്ട് പോവാൻ കൊണ്ട് പോവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് നമ്മൾ മുമ്പ് മുമ്പിലോട്ടില്ല എല്ലാവരും ശ്രമിക്കണം എന്ന് മ മാത്രമേ പറയാനുള്ളു അതുകൊണ്ട് നമ്മളെ കുറെ ഹിന്ദുസീന് എന്ന് പറഞ്ഞാൽ കുറെ നമ്മുടെ ആചാരങ്ങളെല്ലാം നമ്മളൊരു വിശ്വസിക്കാത്ത രീതിയിലേക്കെല്ലാം പോകുന്നുണ്ട് പക്ഷേ അതിനെല്ലാം പിന്നെ ഇതാക്കിയിട്ട് നമ്മൾ ആചാരങ്ങലാളാന്നിത് ആചാരങ്ങളും നമുക്ക് പണ്ടുള്ള ആൾക്കാർ ചെയ്ത് വെച്ച ആചാരങ്ങൾ നമുക്കതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ട് പോവാൻ വേണ്ടീട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് കൂടണം എന്ന് മാത്രമെ പറയാനുള്ളു നമ്മളെ മനസ്സിൽ അതുമാത്രമേ ഉള്ളു എല്ലാവർക്കും നല്ലത് വരട്ടെയെന്ന് പ്രാർത്ഥിക്കാം എല്ലാ ഉത്സവങ്ങളും ഉത്സവങ്ങളെ ഉത്സവങ്ങളും മാത്രമായി കാണാതെ നമ്മളൊരു ആചാരവും ങ്ങളായിട്ട് കാണാൻ കാണാൻ കൂടി എല്ലാവരും പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് വരണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളു എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പിന്നെ എല്ലാം നമ്മളുടെ ആചാരങ്ങളുടെ നമ്മുടെ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു